അതെയല്ലോ ആരാണ് സംസാരിക്കുന്നത് ആ ആ ഓക്കേ ഓക്കേ ഞാൻ ഓർക്കുന്നു ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എൻജോയ് ചെയ്തോ ആ ഓക്കേ ഓക്കേ അപ്പോൾ ഒരുപാട് വ്യത്യസ്ഥങ്ങളായിട്ടുള്ള നമ്മുടെ കലാരൂപങ്ങൾ കേരളത്തിലുണ്ട് അപ്പോൾ അതിൽചില കലാരൂപങ്ങൾ അനുഷ്ഠാനങ്ങളായിട്ട് ആരംഭിക്കപ്പെട്ടത് അങ്ങനെ തുടങ്ങിയതാണത് പിന്നെ അതിപ്പോൾ നിലവിൽ ഇപ്പോൾ പ്രദർശനം ആയിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ആർട്ട് ഫോംസ് അല്ല ഇത് രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും അപ്പോൾ അതിൽ ഒന്നാമത്തെ ആണ് നമ്മൾ ദൃശ്യകലകളെന്നാണ് പറയുന്നത് അതിനെ പിന്നെ ഒന്ന് പ്രകടന കലകളെന്നും ഈ ദൃശ്യകലകളെന്ന് പറയുമ്പോൾ അതിനെ അതിലാണ് നമ്മളെ ഈ പറഞ്ഞതുപോലെ ചിത്ര ചിത്രകലാ രൂപങ്ങളും പിന്നെ ശിൽപ്പകല ചുവർ ചിത്രങ്ങൾ വാസ്തു ശില്പങ്ങൾ അങ്ങനെ ഒക്കെ ഉള്ളത് ഉള്ളത് ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ നമ്മളെ ടെമ്പിൾ വിസിറ്റ് ചെയ്ത് പത്മനാഭസ്വാമി ടെമ്പിൾ വിസിറ്റ് ചെയ്തപ്പഴും അതുപോലെ തന്നെ അവിടത്തെ കുതിര മാളികയിലൊക്കെ പോയപ്പോഴും അവിടെ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞതുപോലെ വാസ്തു ശില്പങ്ങളും പിന്നെ അവർ ഉപയോഗിക്കുന്ന ആ ഒരു അവരുടെ ഒരു കഴിവ് നമ്മൾ കണ്ടല്ലോ ആർട്ട് ഫോംസ് ഉണ്ടല്ലോ ഓക്കെ അതൊക്കെ ആണ് ഇതിൽ വരുന്ന ചിത്രങ്ങളാണ് പിന്നെ ഉള്ളത് നമ്മുടെ അത്തപ്പൂക്കൾ അറിയാമല്ലോ ഓണത്തിന് ഞങ്ങൾ അത്തപ്പൂക്കളം ഇടാറുണ്ട് അത് ഒരു കല ആണ് പിന്നെ ഉള്ളത് കളമെഴുത്ത് ഉണ്ട് അത് ഈ പറഞ്ഞതുപോലെ അമ്പലങ്ങളിൽ അഞ്ച് നിറത്തിലുള്ള പൊടികൾ വച്ചിട്ടാണ് നമ്മൾ ദേവതയുടെ കളം പോലെ വരയ്ക്കും ആ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ വരുന്നത് ഓക്കെ അതൊക്കെ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഈ പറഞ്ഞതുപോലെ പ്രകടന കലകളാണ് അതെന്നു പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സംഗീതം അല്ലെങ്കിൽ ശബ്ദം ശരീരം ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അപ്പോൾ അതിനകത്താണ് ഇന്നലെ ഞങ്ങൾ നിങ്ങൾക്ക് കഥകളി മോഹിനിയാട്ടം അതൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ അതൊക്കെ എന്ന് പറയുമ്പം ഈ പ്രധാനപ്പെട്ട പ്രകടന കല കലകളിൽ വരുന്നതാണ് അപ്പോൾ ഇത് ഒക്കെയെന്നും പ്രധാനമായിട്ടും ഈ കഥകളി മോഹിനിയാട്ടം ഒക്കെ ആണ് ട്രഡീഷണലിൽ ആയിട്ട് നമ്മൾ റെപ്രെസെൻ്റ് ചെയ്യുന്ന പ്രകടന കലകൾ പ്രധാനം ആയിട്ടും കൂടാതെ തന്നെ ഈ പ്രകടന കലകളെ തന്നെ നമ്മൾ വീണ്ടും എന്താ പറയുക അനുഷ്ഠാന കലകളെന്നും ക്ഷേത്ര കലകൾ സാമൂഹിക കലകൾ ഗോത്ര കലകൾ പിന്നെ നാടൻ കലകൾ എന്നിങ്ങനേയും ഇതിനെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ അനുഷ്ഠാന കലകൾ ഉണ്ട് ക്ഷേത്ര കലകളിലാണ് ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ കഥകളി പിന്നെ മോഹിനിയാട്ടം തെയ്യം തിറ ഇതൊക്കെ വരുന്നത് കളരിപ്പയറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഈ കളരിപ്പയറ്റും ഒക്കെ ഇതിനകത്ത് വരുന്നതാണ് കളരി കളരിപ്പയറ്റ് പുലികളി പിന്നെ തിരുവാതിര ഉണ്ട് തിരുവാതിര ആ തിരുവാതിരയും ഇന്നലെ കാണിച്ചു തന്നു എല്ലാവരും കൂടി വിളക്കിന് ചുറ്റും ഒക്കെ നിന്ന് കളിച്ചിട്ടില്ലേ ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ട്രഡീഷനെ റെപ്രെസെൻ്റ് ചെയ്യുന്ന ആർട്ട് ഫോംസെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഏകദേശം ഒര് ഐഡിയ കിട്ടിയോ മനസ്സിലായോ ആ ഓ ഓക്കേ ഓക്കേ അപ്പോൾ ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അത് വായിച്ചാൽ കൊറച്ചും കൂടി അതിനകത്ത് കൊറച്ചും കൂടി നല്ല പിക്ച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി എല്ലാം ഒക്കെ എന്തൊക്കെ ആണെന്നുള്ളത് കുറച്ചും കൂടി വ്യക്തമാകും ഓക്കേ സാർ നോ പ്രോബ്ലം ഹാവ് എ നൈസ് ഡേ